യൂ ട്യൂബില് പ്രധാനമായിട്ടും ഇഷ്ടമുള്ളൊരു ചാനല് ഷമ്മിസ് കിച്ചൻ എന്നാണ് അതുപോലെ ഹെബ്ബാസ് കിച്ചൻ യമ്മി കൂടുതൽ കാണുന്നതും റെസിപികൾ പരീക്ഷിച്ചു നോക്കുകയും വിജയിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ചാനലുകളിൽ നിന്നാണ് അതുപോലെ തന്നെ അമ്മുസ്റെ റെസിപ്പിസ് ഡൈനേഴ്സ് കണ്ണൂർ ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ള രീതിയില് ഉള്ള ചാനലുകളാണ് പിന്നെ അതുപോലെ ടി വി ഷോസായാലും കുക്കറി ഷോ ടേസ്റ്റി ടൈം കേരള കിച്ചൻ ആനീസ് കിച്ചൻ തുടങ്ങിയ പ്രോഗ്രാമുകള് ഏഷ്യാനെറ്റിലും അമൃതയിലും സൂര്യയിലൊക്കെ സംപ്രേഷണം ചെയ്ത കുക്കറി ഷോകളും കാണാറുണ്ട്